ഞങ്ങൾ പരമ്പരാഗതമായിട്ട് കളിച്ച കളി എന്നുപറഞ്ഞാൽ ഫുട്ബോളാണ് എൻ്റെ ഉപ്പപ്പാന്റുപ്പാപ്പ വരെ ഫുട്ബോൾ കളിച്ച്ക്കണ് അതെനിക്കറിയാം എങ്ങനെ കളിച്ചത് എന്നുപറഞ്ഞാൽ പക്ഷെ ഫുട്ബൊളൊരു വികാരമാണ് കേട്ടോ ആ എങ്ങനെ കളിച്ചാ എന്ന് പറഞ്ഞാൽ പെനാൾട്ടി ഓഫ് സൈഡ് പിന്നെ സൈഡിൽനിന്നടിച്ച പിന്നെ ആ അതിൽത്തെ കളിക്കുന്ന ആൾക്കാര്തൊക്കെ സ്ഥാനം എന്ന് പറഞ്ഞാൽ സി എഫ് സി എഫ് എന്നുപറഞ്ഞാൽ മുന്നിൽ നിൽക്കുക ജി കെ ജി കെ എന്നുപറഞ്ഞാൽ ഗോളി ഗോളി ഗ്ലൗസൊക്കെ കയ്യുറയൊക്കെ ഇട്ടുകൊണ്ടുള്ള ഗോളി പിന്നെ ഷൂവൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു കളിച്ചിരുന്നത് ഷൂവൊക്കെ ഇട്ടുകൊണ്ട് കളിക്കുമ്പോൾ പന്ത് അതിനെ അടിക്കുമ്പോൾ പന്ത് നല്ല സ്പീഡിൽ പോവും പിന്നെ അതിൽ ഫൗളൊക്കെ വച്ചാൽ ചുവപ്പ് ചുവപ്പ് പേപ്പർ നീല പേപ്പർ ഒക്കെയുണ്ട് ചുവപ്പ് പേപ്പർ കിട്ടിയാൽ കളിയിൽനിന്ന് ഒഴിവായി എന്നർത്ഥം നീല പേപ്പർ നീല പേപ്പർ രണ്ട് വട്ടം കിട്ടിയാൽ ചുവപ്പ് പേപ്പറിനെ മാതിരിക്കാണ് പക്ഷേ നീല പേപ്പർ ഒരുവട്ടം കിട്ടിയാൽ കളിയിൽനിന്ന് ഒഴിവാവില്ല ഒരു നിർദ്ദേശം തരുന്ന മാതിരിക്കായിരിക്കും നീല പേപ്പർ കിട്ടിയാൽ ഫുട്ബോൾ കളിയെന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അതിൽ കോർണറിൽനിന്നൊക്കെ പന്ത് അടിച്ചുകൊണ്ട് നേരെ പോസ്റ്റ് ഗോളിക്കീപ്പറിൻ്റെ കയ്യിലേക്കെത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അത് കളിച്ചുതന്നെ നോക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ പരമ്പരാഗതമായിട്ടിതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വല്ലാത്ത കളിതന്നെയാണ് വല്ലാത്തൊരു കളി